സ്വന്തം മാതൃഭാഷയിൽ രേഖകൾ വേണമെന്ന് ഞാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് കാരണം ഇത് വയസ്സായാൾക്കാരെ അത് സഹായിക്കും കാരണം വയസ്സായ ആൾക്കാർക്ക് ഇംഗ്ലീഷെന്ന ഭാഷ അറിയിണ്ടാവില്ല പക്ഷേ മറ്റാളുകൾക്കൊക്കെ അറിയുണ്ടാവും അത് ഉപയോഗകരമാവും അവസാനം സ്വന്തം ഭാഷയിൽ ഇതാക്കി വെക്കുമ്പോൾ എല്ലാവർക്കും വായിക്കാനും പറ്റും ഇതാക്കാനും പറ്റും ഇംഗ്ലീഷറിയാത്തോർക്കും ഒന്ന് വായിക്കാൻ പറ്റും എന്നച്ചാൽ നിർബന്ധാവണന്നില്യ വേണ്ടപ്പെട്ട രേഖകൾ വയസ്സായ ആൾക്കാരെ രേഖകളൊക്കെ ഇതേപോലെ ചെയ്തുവെച്ചാൽ ഒരു നാളിലുപയോഗമായി മാറും നിങ്ങൾ ചെയ്തേച്ചങ്കരം വയസ്സായ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയണം നിർബന്ധില്യ അവർ വന്നിട്ട് മലയാളത്തിൽ വായിക്കുമ്പോൾ അവർക്കൊരു ഇതാണ് മറ്റൊരാൾടെ സഹായം അവർക്ക് വേണ്ടി വരില്യ അത് ചെയ്യാൻ അത് രേഖാപരമായെടുത്തേക്കുന്നൊരു നല്ല കാര്യമാണ്